നമ്മുടെയൊക്കെ പ്രദേശത്തൊരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്നതല്ലെ കുറ്റകൃത്യങ്ങൾ എന്നു വച്ചാൽ വലിയതല്ല ചെറിയ ചെറിയ കാര്യങ്ങളക്കെ ഒരുപാട് നടക്കാറുണ്ട് അപ്പോൾ പോലീസുകാർ എന്തുചെയ്യും ആദ്യംതന്നെ ഇത് കണ്ടുനിൽക്കുന്ന ആൾക്കാരെ എന്തുചെയ്യും പോലീസ് റിപോട്ട് ചെയ്യുന്നു അവരുടനടി തന്നെ വന്ന് നടപടി സ്വീകരിക്കുന്നു അങ്ങനെ ഒരു കാര്യം നല്ല വഷളായി നിൽക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേജിലോട്ടാണെങ്കിൽ എന്തുചെയ്യും അവർ കുറ്റം കുറ്റംചെയ്ത ആളുടെ പേരിൽ എന്തു ചെയ്യുന്നു കേസെടുക്കുന്നു പിന്നെ അതിനെ തുടർന്നുള്ള നടപടികളെല്ലാം നടത്തുന്നു അല്ലാതെ അവിടെയൊരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചൊന്നും അല്ല അവർ ആ കേസൊക്കെ കൈകാര്യം ചെയ്യുന്നത് സൗമ്യമായ രീതിയിൽതന്നെ മാക്സിമം അവർ കേസൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ സാധാരണക്കാരിൽ സംരക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടത് ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ എൻ്റെ പേർസണലി റെഫെറൻസ് അത്യാവശ്യം നല്ലൊരു ശിക്ഷതന്നെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക അതിലൂടെ നമുക്കെന്താ മറ്റുള്ളവർക്ക് എല്ലാവരുടെ ഇടയ്ക്കും അത് ഭീതി പരത്തുമെങ്കിലും അതിനൊരു പോസിറ്റീവ് ഇമ്പാക്ട് ആൾക്കാരുടെ ഇടയ്ക്കുണ്ടാകാൻ പറ്റും അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനോട് പേടിതോന്നി തുടങ്ങും ആൾക്കാർക്ക് പിന്നെ അപകടങ്ങളുടെ കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിലും കുറച്ചുകൂടി ട്രാഫിക്കൊക്കെ ഒന്നും ഒരിച്ചിരികൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാം നന്നാക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രദേശത്തെ ആൾക്കാരുടെ ഇതിലൊക്കെ പറയാനുള്ളു അതുപോലെ ഇപ്പം റോഡിലൂടെ നടക്കുന്നവരാണെങ്കിലും അവരുടെ സീബ്ര ക്രോസ്സിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ റൂൾസ്സൊക്കെ കീപ്പ് ചെയ്യാൻ മാക്സിമം നോക്കാൻ ശ്രമിക്കുക